അഞ്ച് അഞ്ച് രണ്ടായിരം ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല്

പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന്